ഞങ്ങളുടെ വീട് എല്ലാ ദിവസവും തൂത്തു വാരാറുണ്ട് തുടയ്ക്കുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് ആവശ്യം രോഗങ്ങളൊന്നും വരാതെ തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ പോകാറുണ്ട് എല്ലാ ദിവസവും തുടയ്ക്കുവേം തൂക്കുകയും തുടയ്ക്കുകയും ചെയ്യുന്നുണ്ട് ക് നമ്മുടെ വീട് നല്ല ഒരു വൃത്തിയായിട്ട് തന്നെ കിടക്കാറുണ്ട് മറ്റുള്ള ഒരു വിരുന്നുകാർ വന്നാലും എല്ലാം നല്ല എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കാറുണ്ട് പിന്നെ അത്യാവശ്യം എല്ലാ ദിവസവും എല്ലാ ദിവസവും തന്നെ തൂത്ത് വൃത്തിയാക്കിയിട്ടിട്ടാണ് എവിടെയും പോകാറുള്ളൂ പിന്നെ ച് ചാണകം മെഴുകിയ തറയിൽ പണ്ട് കുഞ്ഞുന്നാളിൽ കിടന്നിട്ടുണ്ട് അതിൻ്റെ അത് സത്യം പറഞ്ഞാൽ അന്ന് ചാണകം മെഴുകിയ തറയിൽ കിടന്നുറങ്ങിയിട്ടുള്ളായിരുന്നതുകൊണ്ട് അന്ന് ഇത്രയധികം രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അന്നത്തെ ഒക്കെ ഉള്ള മനുഷ്യർ ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെയും നല്ല ഇതോടെയും ഇരിക്കുന്നതിൻ്റെ മെയിൻ കാരണമൊക്കെ അന്ന് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയും പിന്നെ ചാണകം മെഴുകിയ തറയിൽ കിടന്നുറങ്ങുകയും അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നാം ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇപ്പോഴത്തേ തറ ടൈലിൻ്റെ ഉപയോഗങ്ങളെ എല്ലാം തന്നെ അത് ആരോഗ്യത്തെ ഒത്തിരിയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഉപ്പൂറ്റിയിൽ വേദന കാലിൻ്റെ ഉപ്പൂറ്റിയിൽ വേദന വാദത്തിൻറേതായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരിതാണ് ടൈൽ ഉപയോഗിക്കുന്നത് എന്തും കൊണ്ടും പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ചാണകം മെഴുകിയുള്ള തറയും കാര്യങ്ങളും തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് ആണ് എൻ്റെ അഭിപ്രായം പിന്നെ എന്നാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻറെ അകത്ത് ഉള്ളത്